ഹലോ മാനന്തവാടി ഹോസ്പിറ്റൽ ആ ഹായ് എപ്പോഴാണ് ടെസ്റ്റ് ചെയ്തത് ആ പോസിറ്റീവാണോ കാണിച്ചത് ആ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ ആ ആ തലവേദനയും മേലുവേദനയും അല്ലേ പനി അങ്ങനെയെന്തെങ്കിലുമുണ്ടോ ആർക്കെങ്കിലും വീട്ടിലാർക്കെങ്കിലും

അങ്ങനെ അല്ല ഇതിന് മുന്നേ ആരും ആരെങ്കിലുമായിട്ട് അല്ല വീട്ടിനടുത്തുള്ള ആർക്കെങ്കിലും ഉണ്ടോ

ആ ക്വാറൻ്റയിനിലല്ലേ ഇരിക്കുന്നത് ഭക്ഷണം ഒക്കെ നല്ലോണം കഴിക്കുന്നുണ്ടോ ആ പക്ഷെ കൊറോണയായതുകൊണ്ട് നല്ലോണം ഭക്ഷണം കഴിക്കണം കാരണം നമുക്കതാണ് മെയിനായിട്ട് പിന്നെ നമ്മൾക്ക് നമ്മൾ തന്നെയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ ആകെ പാരസെറ്റമോൾ ആ ഒരിത് മാത്രമേ നമുക്കുള്ളൂ അപ്പോഴതിനു നമ്മളാദ്യം നല്ലോണം ഭക്ഷണം കഴിക്കണം ആ അങ്ങനെ ശ്രദ്ധിക്കണം പിന്നെ പിന്നെ വീട്ടുകാരുമായിട്ട് അങ്ങനെ ഒരു അധികം ഇതാക്കാണ്ട് നിൽക്കണം ഒരു റൂമ് തന്നെ ഇരിക്കണം അല്ലേ മറ്റുള്ളവർക്കും വരില്ലേ ആ അപ്പോഴൊരു മീറ്ററ് അകലം പാലിക്കുക പാലിക്കണം പിന്ന ആവശ്യത്തിന് മാത്രമേ സംസാരിക്കാനൊക്കെ പാടുള്ളൂ അവരുമായിട്ട് ആ അപ്പോഴൊരു റൂമിൽ തന്നെ ഇരിക്കുക നല്ലോണം ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക ആ അതായത് ആപ്പിള് അങ്ങനെ ഉള്ള ഫ്രൂട്ട്സൊക്കെ നല്ലോണം കഴിക്കുക ആ എന്നാൽ അതൊക്കെയാണ് പറയാനുള്ളത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവുള്ളൂ അപ്പം നമുക്ക് തരാനുള്ള അഡ്വൈസ് അതേ ഉള്ളൂ പിന്നെ നമ്മൾ വരികയാണെങ്കിൽ ആശാവർക്കർ എന്തെങ്കിലും ടാബ്ലറ്റ് എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നോ

ആ ആ അത് കഴിച്ചിരുന്നോ ആ ആ മൂന്ന് നേരം കഴിച്ചിരുന്നോ ആ രണ്ട് നേരമാണോ മൂന്ന് നേരം കഴിക്കണം കേട്ടോ പനി ഉണ്ടെങ്കിൽ മൂന്ന് നേരം കഴിക്കണം ആ ചുമ എന്തെങ്കിലുമുണ്ടോ ആഹ് തലവേദന അല്ലേ ആ ഓക്കെ എന്നാൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ നമ്മളെ പെട്ടെന്ന് അറിയിക്കണം അല്ലെങ്കിൽ ആശാവർക്കറെ അറിയിക്കണം കേട്ടോ ആ ശരി എന്നാൽ ആ